അപ്പോൾ ഒരു ഹൈക്കിങ് ഹൈക്കിങ്ങിനിടെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഒരു ട്ര ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് നമ്മള് ആവശ്യത്തിലേറെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മള് ശ്രമിക്കുന്നെയാണ് പക്ഷെ അന്ന് ഒരു വട്ടം പോയപ്പോൾ ഇങ്ങനെ ഭക്ഷണം അധികം നമ്മള് കരുതീട്ടില്ലായിരുന്നു അതാണ് നമുക്ക് പറ്റിയ ഒരു അബദ്ധമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കാരണെന്താന്ന് വച്ച് കഴിഞ്ഞാല് ഇങ്ങനൊരു സ്ഥലത്തേക്ക് അതായത് ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് നമ്മള് ഇത്രയും ദൂരം പ്രതീക്ഷിച്ചിലായിരുന്നു പിന്നെ നമ്മള് വരാൻ ഒക്ക വൈകി പോയായിരുന്നു അവസാനം നമ്മള് ഭക്ഷണം കൊണ്ട് പോകാണ്ട് നമ്മള് അവിടെ മേലെ എത്തി കഴിഞ്ഞപ്പോൾ അതായത് മലേൻ്റെ മേളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വല്ലാത്ത രീതിയില് വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പം വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് നമ്മള് അവിടന്ന് ചെറിയ ചെറിയ കായും അങ്ങനത്തെ ഇതൊക്കെയാണ് അതായത് കാട്ടിലെ ഓരോ ഫലങ്ങളാണ് കൂടുതലായിട്ടും നമ്മള് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിച്ചിട്ടാണ് നമ്മള് പിന്നെ വൈന്നേരമായപ്പോഴത്തേക്ക് ഇറങ്ങിയത് പിന്നെ ഇത് അതു കൊണ്ടു തന്നെ ഇത് ഒരു ഭയങ്കര പെട്ടന്ന് അതായത് പെട്ടന്നുള്ള ഒരു ഇതായി പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത്രെയും ദൂരം സഞ്ചരിക്കുംന്ന് നമ്മള് പ്രതീഷിച്ചട്ടില്ല അതൊക്കെയാണ് ഒരു പ്രശ്നമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല്